ഹലോ ഞാൻ ജോസ്മിയാണ് സംസാരിക്കണെ ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് ഓഡറ് ചെയ്തിരുന്നു അത് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡെലിവറി കിട്ടുക ഉണ്ടായി മൂന്നു ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഡെലിവറി കിട്ടി അത് കറക്റ്റ് സൈസായിരുന്നു കറക്റ്റ് ഫിറ്റായിരുന്നു എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നല്ല ചേർച്ച ഉണ്ടായിരുന്നു അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല റിവ്യൂ ആണ് എനിക്ക് ആ ഓഡറിനെപ്പറ്റി നൽകാനായിട്ടുള്ളത് നിങ്ങൾ തുടർന്നും ഇതുപോലെ തന്നെ തുടരുക